ഞങ്ങൾക്ക് കുറച്ച് കുരുമൊളക് അതുപോലെ കൊറച്ച് റബ്ബറ് ഏലം ഒക്കെ വിൽക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ മദ്ധ്യവർത്തികളെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വിപണനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എപ്പോൾ താങ്കളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഏറെക്കൊറെ അതിനൊള്ള വിലകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ സാധിച്ച് ഒന്ന് പറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു എന്നത്തേന് വന്നാലാണ് നമുക്ക് രൊക്കമായിട്ട് വിപണന നടത്തി അതിൻ്റെ പൈസയും വാങ്ങിച്ച് തിരിച്ച് പോരാൻ പറ്റുന്നതെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു ഒന്ന് സഹായിക്കാമോ